ഞങ്ങളുടെ വീട്ടില് വിരുന്നുകാർ എല്ലാം വന്നാല് നമ്മളുടെ ഇഷ്ടത്തിന് നമ്മള് കുറേ ഭക്ഷണം ഒക്കെ ഉണ്ടാക്കി അവരുടെ കൂടെ അടുക്കളയില് അവരുമായി പങ്ക് പങ്കുചേർന്ന് ഭക്ഷണങ്ങൾ ഒക്കെ ഉണ്ടാക്കി അവർ വേണ്ട വിധത്തിൽ കൊടുത്ത് അവര് കുടുംബക്കാർ ഞങ്ങൾ ഒരുമിച്ച് ഇരുന്ന് ഭക്ഷണം കഴിച്ച് വേണ്ട എന്താ വേണ്ടത് എന്ന് വെച്ചാൽ അത് എല്ലാം ഉണ്ടാക്കി കൊടുത്ത് നമുക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങൾ ഒക്കെ ഉണ്ടാക്കി അവര് വന്നാൽ നമ്മള് അങ്ങനെ ബിരിയാണി അങ്ങനെ നെയ്ച്ചോറ് ചിക്കൻ കറി അങ്ങനെയൊക്കെ അല്ലെ ഉണ്ടാക്കുക അവർക്ക് വേണ്ടത് ഭക്ഷണങ്ങളും പലഹാരങ്ങളും ഒക്കെ ഉണ്ടാക്കി കൊടുത്ത് അവരെ സന്തോഷവാനായി പറഞ്ഞു വിടും പിന്നെ അവര് താമസിക്കുകയാണേൽ നമ്മൾ രണ്ട് വശവും നിന്ന് അവരുടെ കൂടെ ഇരുന്ന് സംസാരിച്ച് സന്തോഷിച്ച് എല്ലാവരും കൂടി ഇരുന്ന് ഭക്ഷണം ഒക്കെ കഴിക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമല്ലേ നമ്മുടെ കുടുംബക്കാർ ഒക്കെ വന്ന് പോയാൽ ഭയങ്കര ഇഷ്ട്ടപ്പെട്ട ഒരു ഇതല്ലേ നമ്മുടെ കാര്യം നമുക്ക് അതുകൊണ്ട് കുടുംബക്കാര് എല്ലാവരും വന്നുകഴിഞ്ഞാൽ നമുക്ക് വളരെ സന്തോഷത്തിലാണ് നമ്മള് കാര്യങ്ങൾ ഒക്കെ നടത്തുക അങ്ങനെയാണ് കുടുംബക്കാരുമായിട്ടുള്ള സമയം ചില ചിലവഴിക്കുന്നത് എന്ന് എന്നാണ് പറഞ്ഞത് എന്നാണ് നമ്മള് പറയുന്നത്